ഹലോ കരുവേലിയിലെ ഇറച്ചിക്കടയല്ലേ ആ ഞാന് ഇവിടെ കരുവേലിയില് താമസിക്കുന്ന ആളാണെ ഞാൻ കുറച്ച് രാ കഴിഞ്ഞ ആഴ്ച്ച കഴിഞ്ഞ ശനിയാഴ്ച്ച നിങ്ങളുടെ അവിടുന്ന് കുറച്ച് ഇറച്ചി മേടിച്ചായിരുന്നു പക്ഷെ അത് അത്ര പോരായിരുന്നു ആ ഇറച്ചി എന്നാ നമുക്ക് ആ കറി വെച്ചിട്ടും ഒന്നൊരു സുഖവില്ല ഒത്തിരി ഇങ്ങനെ നെയ്യും പശയൊക്കെയായിട്ട് കിടക്കുവായിരുന്നു ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു നല്ലത് നോക്കി തരണം എന്നുള്ളതൊക്കെ പക്ഷെ ഇപ്പം നമുക്ക് ഞാനാണെങ്കിൽ ഒരു ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു അപ്പം അവരുടെ മുന്നിലെനിക്കാകപ്പാട് ക്ഷീണമായി അപ്പോൾ അതിനൊരു കംപ്ലയിൻറ്റ് പറയാനായിട്ടായിരുന്നു ഞാൻ വിളിച്ചത് ആ ആ നിങ്ങൾ ആ നിങ്ങൾ എങ്ങനെയാ ഫ്ര ഫ്രഷായിട്ട് അന്നന്ന് തരുന്ന സാധനമല്ലേ നമുക്ക് തരുന്നത് ആ അല്ല അത് നമുക്ക് മനസ്സിലാവും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മനസ്സിലാവും പക്ഷേ നമ്മള് കറി വെച്ചിട്ട് കൂട്ടാൻ കൊള്ളാവുന്ന കഷ്ണം കുറച്ചെങ്കിലും വേണ്ടേ ആ അപ്പോൾ തീരെ അപ്പോൾ നിങ്ങൾക്ക് ആ അപ്പം നിങ്ങള് തീരാറായെങ്കിൽ സമയവാണെങ്കിലൊക്കെ നമ്മളോടത് പറഞ്ഞിരുന്നെങ്കിലേ നമ്മള് വേറെ കടയിൽ പോയി മേടിച്ചേനേ അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പോലെ നമ്മളോട് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് വേറെ ഇറച്ചി വേറെ എന്തെങ്കിലും ഒരു ഒന്ന് യോ എന്തെങ്കിലും കൂടെയങ്ങ് മേടിച്ച് വെച്ചിരുന്നെങ്കിൽ രണ്ട് കറിയുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു കറിയായിരുന്നു അപ്പം അത് മിസ്സായി പോയപ്പഴേ നമുക്ക് ആകെപ്പാടെ ഒരു ക്ഷീണമായി അത് ഗസ്റ്റുകളുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മള് വീട്ടിലാണെങ്കിൽ നമുക്ക് അത് പ്രശ്നമില്ലായിരുന്നു

ആ ആ ആ ആ നല്ല പീസ് തന്നെ വേണേ അപ്പം എന്നത്തേക്കായിരിക്കും അപ്പം കിട്ടുന്നത്

ആ ഏഴ് മണിയാകുമ്പം പോരാൻ പാടായിരിക്കും ഞങ്ങള് രാവിലെ പള്ളിയിൽ പോകുവേ കുർബാനയുണ്ട് അപ്പം

ആ ആ ആ അപ്പോൾ പൈസ കൊടുത്ത് വിടണ്ടല്ലോ

ആ ആ ഹാ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി അടുത്ത തവണ ഇത് ഇങ്ങനെ എന്തെങ്കിലും വരുവാണേൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അതിനും വേണ്ടി കൂടെ പറഞ്ഞതാണ് ആ ആ ആ ആ ആ ആ എനിക്ക് തോന്നുന്നത് ആ അവരില്ലാതെ ഇത് നമ്മളിച്ചിരി രാവിലെ വന്നില്ലായിരുന്നോ അപ്പോൾ ലാസ്റ്റത്തെയൊക്കെ സെക്ഷനിൽ നിന്നാണെന്ന് തോന്നുന്നു കിട്ടിയത് അപ്പോൾ മുകളിൽ നിന്നാദ്യം ആദ്യം മാറ്റി വെച്ച മാറ്റി വെച്ച നെയ്യും കൂടെ ചേർത്തങ്ങ് തന്നതായിരിക്കും

ഹാ ഹാ

ആ ആ ആ ആ ഓക്കെ ശരി ശരി താങ്ക്യൂ കേട്ടോ